നിങ്ങളില് താല്പ്പര്യമുണ്ടോ നമുക്ക് എന്തെല്ലാം കാര്യങ്ങള്ക്കാണ് ഫുഡിനകത്ത് താല്പ്പര്യമുണ്ട് ഡ്രസ്സിൽ താല്പ്പര്യം ഉണ്ട് ഇഷ്ടം എന്നാണ് ഈ താല്പ്പര്യമെന്ന വാക്കിന്റെ അര്ത്ഥമായി ഞാന് മനസ്സിലാക്കുന്നത് താല്പ്പര്യം എന്നത് കൊണ്ട് നമ്മള്ക്ക് മനസ്സുണ്ടോ നമുക്ക് ചെയ്യാന് പറ്റുമോ എന്നതാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യം

നമ്മള് ചെയ്യാന് ഇന്ട്രസ്റ്റുള്ളവരാണോ എന്നതാണ് ഇന്ട്രസ്റ്റുണ്ടെങ്കില് മാത്രമല്ലേ നമുക്കീവന്ന കാലത്തെന്തെങ്കിലും ചെയ്യാന് പറ്റൂ പല കാര്യങ്ങള്ക്കും താല്പ്പര്യം വേണം മനസ്സില്ലാതെ നമ്മളൊന്നും ചെയ്തുകൊണ്ടൊരു കാര്യവും ഇല്ല ഒരു ജോലി ചെയ്യാനുള്ള ഒരു ഇന്ട്രസ്റ്റ് വേണം കൂടെ പോവാനുള്ള ഇന്ട്രസ്റ്റ് വേണം കഴിക്കാനുള്ള താല്പ്പര്യം വേണം എല്ലാത്തിനും താല്പ്പര്യം വേണം എല്ലാം പറയാം ഉറങ്ങുന്നതിനുവരെ താല്പ്പര്യമുണ്ടെങ്കില് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ താല്പ്പര്യമില്ലാതെ മനസ്സില്ലാതെ നമ്മളെന്ത് ചെയ്താലും അത് പൂര്ണ്ണമാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാന് താല്പ്പര്യമില്ലാത്ത കാര്യങ്ങള് ചെയ്യുന്നതെല്ലാം നമുക്ക് തെറ്റിലേക്കോ അല്ലെങ്കിലത് പൂര്ണ്ണതയില്ലാതെ പോകുന്ന അവസ്ഥയിലേക്കോ ആണ് എത്തിപ്പെടുന്നത് ഇത് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി കരുതാം ഇത് ഇതിലൂടെ താല്പ്പര്യക്കുറവ് എന്താണെന്ന് പല കാര്യങ്ങളിലും താല്പ്പര്യക്കുറവ് നാം പേപ്പറിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയും മറ്റും കേള്ക്കുന്നുണ്ട് അപ്പോളതില്നിന്ന് നമുക്ക് മനസിലാക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് താല്പ്പര്യമെന്നതും താല്പ്പര്യക്കുറവ് എന്നതും ആദ്യം നാം മനസ്സിലാക്കണം നമ്മളിലെന്തെല്ലാം കാര്യങ്ങളില് താല്പ്പര്യമുണ്ടെന്നും എന്തെല്ലാം കാര്യങ്ങളില് താല്പ്പര്യമില്ലായെന്നുള്ളതും നാം മനസ്സിലാക്കി